എനിക്ക് കേള്ക്കാന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകൾ എന്നു പറയുന്നത് ഞാന് പല പല രീതിയിലുള്ള പാട്ടുകൾ കേള്ക്കും അത് ഇപ്പം റൊമാന്സ് ആണെങ്കിലും അതിൽ ഒരു കോമഡി രൂപം വരുന്നതാണെങ്കിലും അതിൽ ഇപ്പം എന്താണ് പറയുക അതുപോലെ തന്നെ കോമഡി രൂപം വരുന്നതാണെങ്കിലും റൊമാന്സ് ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കില് സങ്കടകരമായ രീതിയിലുള്ള പാട്ടുകളാണെങ്കിലും എല്ലാ തരം പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാം നമ്മുടെ നമ്മൾ ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്നതിനെ എന്നത് നോക്കിയിട്ടാണ് നമ്മള്ക്ക് ഏതുപാട്ട് കേള്ക്കണം എന്ന് നമ്മൾ അപ്പോള് തീരുമാനിക്കുന്നത് ഞാൻ എല്ലാ തരം പാട്ടുകൾ കേള്ക്കാന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് ഞാന് കാണുന്നത് ഇതില് പാട്ടിന്റെ കാര്യത്തില് വരുമ്പോള് കാരണം എനിക്ക് അത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പാട്ടുകൾ കേള്ക്കുക വേറെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം ഉള്ളപ്പോൾ സങ്കടമുള്ളപ്പോൾ സന്തോഷമുള്ളപ്പോഴും എന്റെ വെറുതെ ഇരിക്കുന്ന ഒഴിവു സമയങ്ങളില് ഞാന് ഏറ്റവും കൂടുതൽ കേള്ക്കുന്ന പാട്ടുകള് തന്നെയാണ് അത് ഏറ്റവും ഞാന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പാട്ട് കേള്ക്കുന്ന ഒരാൾ എന്നുള്ള ഒരു നിലയില് എനിക്ക് പറയാന് സാധിക്കും ഞാന് എല്ലാ തരം പാട്ടുകളും ഒന്ന് പോലും വിടാതെ കേള്ക്കുന്ന ഒരു ആളാണ് അതിപ്പോള് ഭാഷകളുടെ രീതിയിലേക്ക് വരികയാണെങ്കില് മലയാളം തമിഴ് ഇഗ്ലീഷ് കന്നഡ തെലുങ്ക് അങ്ങനെയൊന്നുമില്ല എല്ലാ തരം എല്ലാ ഭാഷകളിലുമുള്ള പാട്ടുകളും ഞാന് കേള്ക്കാന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേള്ക്കുന്നതുമാണ് ഇതെല്ലാം ഞാന് കേള്ക്കുന്നത് പല ഇപ്പോള് യൂറ്റൂബിൽ കൂടി ഞാന് കേള്ക്കാറുണ്ട് അതുപോലെ തന്നെ ഞാന് മെയിനായിട്ടും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ആപ്പ് എന്നു പറയുന്നത് സ്പോട്ടിഫൈവ് ആണ് സ്പോട്ടിഫൈയില് കൂടെയാണ് ഞാന് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കേള്ക്കുന്നത് യൂറ്റൂബിൽ നിന്നും പാട്ട് കേള്ക്കാറുണ്ട് സ്പോട്ടിഫൈലിയിൽ ഇല്ലാത്ത പാട്ടുകൾ ഞാൻ യൂറ്റൂബിൽ നിന്നാണ് കേള്ക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്